എനിക്ക് ഒരു പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് ആടുജീതം ജീവിതം അതിൽ ഒരു ഒരാൾ ഗൾഫിൽ പോകുന്നതും പിന്നെ അവിടെ ഒരു ആട് കുറച്ച് ആടുകളെ മേയ്ക്കുന്നതും കുറേ നാൾ ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ ഒരു മരുഭൂമിയിൽ കിടന്ന് അലയുന്നതുമൊക്കെയാണ് അതിലത്തെ കഥാ സാഹചര്യം പിന്നെ ഒടുവിൻ കുറേ കുറേ മരുഭൂമിയൊക്കെ താണ്ടി ഒടുവിൽ അയാൾ ഒരു ഒരാൾ അയാളുടെ അടുത്ത് ഒരാൾ വരുന്നതും അയാൾ ഈ ആടുജീവിതത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ രക്ഷപെടുത്തുന്നതുമാണ് ഇതിലെ കഥ അതൊരു നല്ല ഒരു അർത്ഥവത്തായ ഒരു കഥ കൂടിയാണ് ആടുകളേ മേയ്ച്ചതും ഭക്ഷണവും വെള്ളം പോലുമില്ലാതെ കൊറേനാള് മരഭൂമിയിൽ കിടന്നതുമായ കഥകളാണ് ഇതിൽ പറയുന്നത് പിന്നെ അയാൾ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കുറിച്ചാണ് ഇതിൽ കൂടുതലായിട്ട് പറയുന്നത് ഒരു നല്ല ഒരു കഥ കൂടിയാണ് ഇത്